നമ്മുടെ ഈ പ്രദേശത്ത് പല രീതിയിലുള്ള സ്കൂളുകളും കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് താമരശ്ശേരിയാണ് താമരശ്ശേരി എൽ പി സ്കൂള് മുതൽ ഹയർ സെക്കണ്ടറി വരെയുള്ള സ്കൂളുകളും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ആണ് അവര് ആക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട് ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരായത് കൊണ്ട് കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള ഹൈടെക്ക് ആയിട്ടുള്ള വിദ്യാലയങ്ങള് അതായത് നല്ല രീതിയിലുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ നല്ല രീതിയിലുള്ള എന്താ പറയുക എല്ലാം പ്രൊജക്റ്റ് ടൈപ്പായിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് കംപ്യൂട്ടറില് അടിച്ച് നോക്കി കഴിഞ്ഞാല് കിട്ടും പ്രോജെക്ടറ് വച്ചിട്ടൊക്കെയാണ് കൂടുതലായിട്ടും പിള്ളേരെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഓരോ ഇപ്പോൾ പഠിപ്പിക്കുന്നതെങ്ങനെയെന്ന് വച്ച് കഴിഞ്ഞാല് പണ്ടത്തെ പോലെ ബോർഡിലെഴുത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഉണ്ട് പക്ഷെ എന്നാലും നല്ല രീതിയിൽ കുറവാണ് ഇപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല രീതിയില് ഉള്ള സ്കൂളുകളൊക്കെ ഉണ്ട് പക്ഷെ എനിക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പൊതുവെ പണ്ടത്തെ ഒരു രീതിയിലുള്ള ഓടിട്ടൊരു സ്കൂള് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കുറച്ച് കൂടി താത്പര്യം അതിൻ്റെയൊരു നോൾസ്റ്റാജിയയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വേറെയാണ് ഇപ്പോഴത്തെ സ്കൂളുകളിലൊന്നും അത് കിട്ടുകയേ ഇല്ല